ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില എന്തിന് കൊടുക്കുന്നൂന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് സന്തോഷത്തിനന്നെയാണ് നമ്മളെല്ലാവരും സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് അല്ലാണ്ട് വെറുതെ ഇങ്ങനെ സങ്കടപ്പെട്ട് ജീവിതം തീർക്കാൻ ആരും ആഗ്രഹിക്കില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും സന്തോഷത്തിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് പക്ഷേ എങ്ങനെ സന്തോഷിക്കാംന്നുള്ളതിലാണ് കാര്യമുള്ളത് അതായത് ഒരാൾക്കുള്ള സന്തോഷിക്കാനുള്ള രീതി വ്യത്യാസമായിരിക്കും ചില ആൾക്കാർ ഭയങ്കര ചിരിച്ച് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാകും അല്ലെങ്കിൽ തമാശ പറഞ്ഞിട്ട് ആൾക്കാരോട് കൂടുതൽ ഇടപഴകീട്ടക്കെ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാകും ചില ആൾക്കാരങ്ങനെ ആയിരിക്കില്ല ചില ആൾക്കാർ ഈ പറഞ്ഞ മറ്റുള്ളവരെ സന്തോഷിപ്പിച്ച് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാകും അത് പോലെ ഭക്ഷണം കഴിച്ചു സന്തോഷിക്കുന്നുണ്ടാകും അപ്പം യാത്ര ചെയ്തിട്ട് സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാകും അതായത് ഓരോ ആൾക്കാരെ അഭിരുചി വ്യത്യാസമായിരിക്കും സന്തോഷിക്കാനുള്ളത് അപ്പോൾ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നത് എന്തായാലും സന്തോഷത്തിനായിരിക്കും പക്ഷേ അതെങ്ങനെ സന്തോഷിക്കാംന്നുള്ളത് ഓരോ ആൾടെ രീതിക്കനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പോൾ എന്റെ കാര്യത്തിൽ ഈ പറയുന്ന കുറെ കാര്യങ്ങളുണ്ട് അതായത് എൻ്റെ കൂടെ ഉള്ളവരുടെ സന്തോഷം തീർച്ചയായിട്ടും അവരുടെ സന്തോഷം എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന മനുഷ്യനാണ് ഒരുപാടെന്ന് വെച്ചാൽ അങ്ങനെ കൂടുതലൊന്നുല്ല എന്നാലും അത്യാവശ്യം കഴിയുമ്പോഴൊക്കെ യാത്ര ചെയ്യുന്നുണ്ട് ഇന്ത്യയിലായാലും പുറത്തായാലും കുറെ യാത്ര ചെയ്യുന്നുണ്ട് അപ്പോൾ ആ യാത്രകൾ എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും പിന്നെ പുതിയ സൗഹൃദങ്ങൾ പിന്നെ നമുക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ട് വിജയിക്കുന്ന ഒരു സി സിറ്റുവേഷൻ ഉണ്ടാവൂലോ അത് ഭയങ്കരമായിട്ട് എന്നെ സന്തോഷിപ്പിക്കും അപ്പോൾ മാത്രമല്ല നമ്മളുടെ കൂടെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാകും അവർ ജീവിതത്തിലെല്ലാം എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവോലോ അതായത് ഇപ്പോഴെൻ്റെ ഓഫീസിൽന്ന് കുറെ ആൾക്കാരുണ്ട് അവർ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരവസ്ഥയിലെ അല്ല ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാകുന്നത് ഉള്ളത് ഇപ്പോൾ എല്ലാത്തരത്തിലും അവരുടെ ഉയർച്ച നമ്മളുടെ ലൈഫിൽ കണ്ടുകൊണ്ടുണ്ട് ഇതെല്ലാം എല്ലാം എന്നെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കും അതുപോലെന്നെയാണ് ഓരോ ആൾക്കാരും അവരുടെ ലൈഫിലും ഇങ്ങനത്തെ പലകാര്യങ്ങളുണ്ടാകും സന്തോഷിക്കാൻ വേണ്ടിട്ട് ഇപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളിവിടെ വീക്കിലി ഭക്ഷണം ഉണ്ടാക്കാറുണ്ട് കൂട്ടുകാരൊക്കെ കൂടും ഭക്ഷണം ഉണ്ടാക്കും കഴിക്കും അപ്പോൾ ഈ കൂടുമ്പോൾ നമ്മളിന്ന് എത്ര പൈസ പോകും എത്ര ഉണ്ടാകുന്നൊന്നും നമുക്ക് കണക്കില്ല എല്ലാവരും കൂടി അത് എൻജോയ് ചെയ്തിട്ട് പോകുന്നൊരു സന്തോഷമുണ്ടല്ലോ ആ ഒരു ഹാപ്പിനെസ്സ് അത് നമുക്ക് വേറെ എവിടേം കിട്ടാനില്ല ഇങ്ങനത്തെ എന്നെ സംബന്ധിച്ച കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത് അപ്പോൾ സന്തോഷംന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടൻറ്റാണ് ഈവൻ എനിക്കായാലും എല്ലാവർക്കും ഇപ്പോൾ ഇന്നത്തെ സിറ്റുവേഷനിൽനമുക്ക് സന്തോഷത്തിനെ പോലെ തന്നെ ദുഃഖിക്കാനും ഒരുപാട് സാധ്യതകളുണ്ട് പക്ഷേ അത് ഓവർ കം ചെയ്യാൻ നമുക്ക് പറ്റണം അതീന്ന് മാറീട്ട് നമ്മുടെ രീതിയിൽ ഏടെ സന്തോഷം കിട്ടും ഏടെ സങ്കടം കിട്ടുംന്നുള്ള തിരിച്ചറിയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് അതായത് പല കൂട്ടുകെട്ടും പല പല സന്തോഷങ്ങളും വലിയവർ ആപത്തിലേക്കാണ് ഇപ്പം പോയി കൊണ്ടിരിക്കുന്നത് അതായത് ഇന്ന് സമൂഹത്തിൽ വ്യപകമായിക്കൊണ്ടിരിക്കുന്ന ഈ മയക്കുമരുന്ന് പോലുള്ള കാര്യങ്ങൾ കോമണാണ് ഇന്ന് എല്ലാ സ്ഥലത്തും അവൈലബിളാണ് ഏടെ നോക്കിയാലും നമുക്ക് ഈ സാധനം കിട്ടും അപ്പോൾ നമ്മളുടെ ഒരു കൂട്ടുകെട്ട് നല്ല സന്തോഷത്തിലുള്ള ഒരു കൂട്ടുകെട്ട് യാത്രയൊക്കെ ചെയ്തിട്ട് പക്ഷേ നമ്മളെങ്ങനെങ്കിലും അതിലേക്ക് പെട്ട് കഴിഞ്ഞാൽ പിന്നെ വലിയൊരു സങ്കടമായിരിക്കും ഈ പറയുന്ന സന്തോഷമൊന്നും പിന്നെ ആ ലൈഫിൽ ഉണ്ടാകില്ല നമുക്ക് പിന്നെ വലിയ സങ്കടമായിരിക്കും നമുക്ക് വരുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രായോഗിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചിട്ട് എവിടെ നമുക്ക് കിട്ടും നമ്മുടെ ബൗണ്ടറി ഏത് ഏടെ നിർത്തണം ഏട തുടങ്ങണം എന്നുള്ള ഒരു ഐഡിയാസ് എപ്പോഴും നമുക്ക് തന്നെ വേണം അതുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല മാത്രമല്ല ജീവിതംന്ന് പറയുന്നത് ഒരു പ്രാവശ്യം കിട്ടുന്ന സാധനമാണ് അപ്പം തീർച്ചയായിട്ടും ആ ജീവിതത്തിൽ അവസാനം നമ്മൾ പിരിഞ്ഞു പോകുമ്പം അല്ലെ ഇവിടന്നു പോകുന്ന സമയത്ത് നിങ്ങളെന്ത് നല്ല കാര്യം ചെയ്തന്നെ ആൾക്കാർ ചിന്തിക്കുള്ളൂ നമ്മളെ വിലയിരുത്തുമ്പോഴും അങ്ങനെ ആയിരിക്കുലോ സ്വഭാവികമായിട്ടും നിങ്ങൾ എന്താണ് നല്ല കാര്യങ്ങൾ ചെയ്തു ആ നല്ല കാര്യത്തിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയ പോസിറ്റീവ്സ് കുറെ ഉണ്ടാവണം അതായത് നമ്മളെ കൂടെ ഉള്ളവരായാലും നമ്മുടെ വീട്ടുകാരായാലും നമ്മളുടെ ഫാമിലി ആയാലും നമ്മളെ സ്റ്റാഫ്സായാലും നമ്മുടെ കമ്പനി ആയാലും എല്ലാവരും നമ്മളെ കൊണ്ട് എത്ര വളർച്ച നേടി അല്ലെങ്കിൽ അവർക്ക് എന്താണ് വന്നതിനേക്കാൾ എത്ര മാത്രം അവർ ഉയർച്ചയിൽ എത്തി നിൽക്കുന്നുള്ള കാര്യം നമ്മൾ നോക്കണം അതുകൊണ്ട്ന്നെ നമ്മളുടെ ലൈഫ് കൊണ്ട് ലൈഫ് നമ്മൾ എവിടെ എത്തി എന്നുള്ളത് നമ്മൾ വന്ന വഴിയും നമ്മളെ എത്തി എവിടെ എത്തി നമ്മളുടെ ഈ ലൈഫ് കൊണ്ട് എത്രയൊക്കെ ഗുണം കിട്ടി ഇതെല്ലം ലാസ്റ്റ് നമുക്ക് ഒരു സന്തോഷം കിട്ടുന്നൊരു കാര്യമായിരിക്കും അവസാന അവസാന കാലഘട്ടത്തിൽ അതേപോലെ നമ്മളിപ്പോഴും അധികം ഇമ്പോർ നമ്മൾ ഇന്ത്യക്കാർ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത ഒരു കാര്യം നമ്മുടെ ഹെൽത്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ ആരോഗ്യത്തിന് നമ്മൾ തീർച്ചയായിട്ടും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കാറില്ല കൊടുക്കുന്നു വെച്ചാൽ ഇടക്ക് കുറച്ചു നടക്കും പിന്നെ നടക്കില്ല മര്യാദക്ക് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യില്ല മര്യാദക്ക് ഭക്ഷണം കഴിക്കില്ല അത് ഒരു ടൈം ഗ്യാപ് ഉണ്ടാവില്ല ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ പിന്നിലുള്ള ആൾക്കാരാണ് നമ്മൾ നമ്മൾ ഇന്ത്യക്കാർ അത് മാറേണ്ട സമയം കുറെ കൂടുതലായി കാരണംന്ന്ച്ചാൽ ഞാൻ യാത്ര പോകുമ്പോൾ ഞാൻ അതായത് ഈ വിദേശത്തു കുറെ രാജ്യങ്ങളിൽ യാത്ര ചെയ്തിട്ടുണ്ട് ആ ചെയ്യുന്ന സമയത്തെല്ലാം ഏർലി മോർണിംഗ് അതായത് നമുക്ക് രാവിലെ എണീക്കാൻ പോലും പറ്റാൻ മടിയാവുന്ന ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഓടുന്നുണ്ടാവും ഭയങ്കര തണുപ്പാണ് പൊതുവെ തണുപ്പുള്ള സമയത്താണ് ഞാൻ പോകാറ് ട്രിപ്പ് പോകുന്നത് ആ സമയത്തെല്ലാം ആൾക്കാർ ഓടുന്ന ഓടി അവർ വിയർത്തിട്ടുണ്ടാകും അതായത് ആ ഒരു തണുപ്പത്ത് അവർക്ക് അങ്ങനെ വിയർക്കണമെങ്കിൽ അവർ അതിനു ഹെൽത്തിനു കൊടുക്കുന്ന ആ പ്രാധാന്യം നമ്മൾ കണക്കു കൂട്ടണം അത്ര രാവിലെ ഓടീട്ട് അത് മാത്രമല്ല ഇനി ഉച്ച സമയത്ത് വൈകുന്നേരം സമയത്ത് അവർക്ക് എപ്പോൾ ഫ്രീ കിട്ടുന്നു അപ്പോൾ അവർ ട്രാക്കും ഇട്ടിട്ട് ഓടുന്നുണ്ടാവും അതിനു ഈ അവർക്ക് ഓടാനുള്ള പ്രത്യേക ട്രാക് അവിടത്തെ ഗവർമെൻറ്റും അങ്ങനെ ആണ് ഓടാനുള്ള പ്രത്യേക ട്രാക്ക് സിസ്റ്റം അങ്ങനെ പല കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും ഇപ്പോൾ ഈ നമ്മുടെ ഗവൺ നമ്മുടെ നാട്ടിൽ ഈ ഒരു സംഭവങ്ങളൊന്നുണ്ടാവില്ല അപ്പോൾ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് സന്തോഷിക്കാനോ അല്ല വേറെന്തിനും നമുക്ക് പറ്റുവൊള്ളൂ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഫോർട്ടീ ഫോർട്ടി ഫൈവ് ആകുമ്പോഴേക്ക് നമ്മൾ രോഗികളായി ഈ രോഗികളായി കഴിഞ്ഞാൽ പിന്നെ തീർന്നല്ലോ നാല്പത്തഞ്ചു വയസിൽ രോഗം കയറിക്കഴിഞ്ഞാൽ പിന്നെ നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റില്ല നല്ലോണം കിടക്കാൻ പറ്റില്ല നല്ലോണം ഇരിക്കാൻ പറ്റില്ല ഒന്നിനും പറ്റാത്ത ഒരു സ്ഥിതി ആയിരിക്കും വരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അതെല്ലാം ഓവർ കം ചെയ്യണമെങ്കിൽ നമ്മൾ ഹെൽത്ത് പക്കയായിട്ട് നോക്കണം വൃത്തിയായിട്ട് ഹെൽത്ത് നോക്കണം അതിപ്പോൾ ഭക്ഷണ രീതി മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം നോർമലി രാവിലെ ബ്രേക്ക് ഫാസ്റ്റ് കൂടുതലും ഉച്ചക്ക് നോർമലും ഡിന്നറിനൊക്കെ കുറച്ചും വളരെ കുറച്ചുമാണ് നോർമലി അവരെ ആഹാരക്രമംന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ രീതിയിൽ നിന്നും നേരെ തിരിച്ചാണിത് അതായത് രാവിലെ ഒരുപാട് കഴിക്കും ഉച്ചക്കൊക്കെ രാത്രി പിന്നെ പറയാ വേണ്ട നല്ലോണം കഴിക്കും ഏ എന്നിട്ട് ഉറങ്ങും ശരിക്കും നമ്മുടെ ആരോഗ്യ നമ്മുടെ ഓർഗൻസിനൊന്നും ഒരു ഉറങ്ങാൻ കഴിയാത്ത റെസ്റ്റിലാത്ത ഒരവസ്ഥ ഇത്ന്നെയാണ് നമ്മളെ രോഗിയാക്കുന്നത് ഈ രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളുടെ സന്തോഷം കാര്യങ്ങളെല്ലാം പോകും പിന്നെ നമുക്ക് ഈ സന്തോഷം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്നു വെച്ചാൽ നമുക്ക് സന്തോഷിക്കണമെങ്കിൽ നമ്മളുടെ ആരോഗ്യം നമ്മൾ നമ്മളിന്ന് തുടങ്ങണം നമ്മൾ എന്താണ് നമ്മൾ നേരെ ഉണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റു മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും പറ്റു അപ്പം അതുകൊണ്ട് എന്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്നു വെച്ചാൽ സന്തോഷത്തിനു തന്നെയാണ് സന്തോഷിക്കാൻ വേണ്ടി എനിക്കാരോഗ്യം വേണം എൻ്റെ കൂട്ടുകെട്ട് വേണം എൻ്റെ കൂട്ടുകാർ ഫാമിലി വേണം എല്ലാവരെയും ഹാപ്പിയാക്കാൻ പറ്റിയാൽ എൻ്റെ ലൈഫിനൊരു ഒരു അർത്ഥം ഉണ്ടായതായി നമുക്ക് സങ്കല്പിക്കാം